ഈ റേഡിയോ ടെലിവിഷൻ അതുപോലെ അച്ചടി മാധ്യമങ്ങള് ഇതിലെല്ലാം മലയാള ഭാഷേന് നല്ലൊരു ഇമ്പാക്ട് അല്ലെങ്കി മലയാള ഭാഷ അവർക്ക് ഭയങ്കരമായിട്ടൊരു മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാ ഈ പൊതുവേ നമ്മള് റേഡിയോലൂടെ ഇപ്പൊ നമ്മള് ച്ചെയ് ഇപ്പൊ മലയാളികൾ കേരളത്തിലാണ് പറഞ്ഞ മലയാളത്തിലാരിക്കും കൂടുതലും അവരുടേല് വാർത്തയും കാര്യങ്ങളക്കെ നമുക്ക് പറഞ്ഞാൽ അതായിത് മലയാളികൾക്ക് മനസിലാ കൂടുതല് അവര് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഇപ്പൊ മലയാളം ആയിരിക്കും അവരിപ്പോൾ ഹിന്ദീലൊ സംസ്കൃതത്തിലൊക്കെ വാർത്ത ഒണ്ട് പക്ഷേ അതിനേക്കാളും കൂടുതല് ശ്രോതാക്കള് ഉണ്ടാവുന്നത് ഈ മലയാളം സമയത്താരിക്കും ഇപ്പൊ ഓരോ ടൈമിംഗ് ആണല്ലോ ഇപ്പൊ റേഡിയോനെ നോക്കണെന്ന് പറയുമ്പോൾ ഓരോ സമയത്തും ഓരോ ഓരോ ഭാഷകളിലെ ന്യൂസ്കളായിരിക്കും അപ്പൊ നമ്മടെ കേരളത്തിലുള്ള ആൾക്കാര് കൂടുതല് ശ്രദ്ധിക്കുന്നത് മലയാള സമയ മലയാളത്തിൻ്റെ ഇപ്പൊ വാർത്ത ആണെങ്കിൽ മലയാളത്തില് അതുപോലെ പാട്ടുകള് മലയാളത്തില് അങ്ങനെ മലയാളത്തിനാണ് അവര് കൂടുതലായിട്ടും എന്താ പറയുക കൊറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പൊ ടെലിവിഷൻ അതായത് ടീവീലാണെങ്കിലും ടിവിയിൽ ഇപ്പോ മലയാളം ചാനലുകളിൽ ആണ് ഇപ്പോ കേരളത്തില് ഇപ്പോ പൊതുവെ അധികവും മലയാള ഭാഷയില് ഇപ്പൊ ഏഷ്യാനെറ്റ് സൂര്യ പിന്നെ മലയാള മനോരമ ഫ്ളവേഴ്സ് അങ്ങനെയുള്ള ചാനലുകൾക്ക് അതായത് മലയാളം ചാനലുകൾക്ക് ആണ് മാക്സിമം ആൾക്കാര് പ്രാധാന്യം നൽകുന്നത്